ആധാർ കാർഡുകൾ യഥാസമയം അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ബയോമെട്രിക് പരിശോധന ആവശ്യമാണ് തീർച്ചയായിട്ടും ഇത് ഓരോ സമയത്തും നമ്മൾ ചെയ്യേണ്ടതാണ് നിശ്ചിതകാലം കഴിയുമ്പോൾ ആധാർ അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്കറിയാം ആധാറാണ് എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ളത് അതു കൊണ്ട് എല്ലാ ഓഫീസുകളിലും അല്ലെങ്കിൽ നമ്മൾ പൊതുവിൽ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളിലും പല സാഹചര്യങ്ങളിലും ആധാറിൻ്റെ ആവശ്യമുണ്ട് അതു കൊണ്ട് അതിൻ്റെ അപ്ഡേഷൻ വളരെ കൃത്യമായിട്ടും ചെയ്യേണ്ടതാണ്